വിനോദസഞ്ചാരത്തിനായിട്ട് ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ബോട്ടിങ്ങിനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് എങ്കിൽപ്പോലും അവരാൽക്കഴിയുന്ന വിധത്തിൽ ബോട്ടിങ്ങിന് മാത്രം വരാതെ ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽനിന്ന് വരുന്നവരൊക്കെയാണെങ്കിലും അത് ആലപ്പുഴ കേരളത്തിലെ പതിനാല് ജില്ലകൾ എന്നല്ല അതിനപ്പുറം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്ത് നിന്നും ഉൾപ്പെടെ ആളുകൾ ഇവിടെ വിനോദസഞ്ചാരത്തിനായിട്ടും ആലപ്പുഴയും ആലപ്പുഴയുടെ പ്രകൃതി രമണീയത കാണാനായിട്ടൊക്കെ എത്തിച്ചേർന്ന ധാരാളം ആളുകളുണ്ട് ഇന്ന സ്ഥലം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരിക്കൽ ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തെ രാജാവും രാജ്ഞിയുമുൾപ്പെടെ നമ്മുടെ കുട്ടനാടും പ്രകൃതിയും ബോട്ടിങ്ങും എല്ലാം ആസ്വദിക്കാനായിട്ട് എത്തിച്ചേർന്നതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വരുന്നവരെല്ലാം ഇപ്പം ഏത് മതസ്ത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവസമൂഹത്തിൽപ്പെട്ട ഒരു ആളുകളാണ് വിനോദത്തിനായിട്ടിവിടെഎത്തിച്ചേർന്നതെങ്കിൽ അവരാൽക്കഴിയുന്ന വൈദികരോ സിസ്റ്റർമ്മാർ വഴിയോ അവർ രാവിലെയെത്തുന്നവരോ അല്ലെങ്കിലവർ എത്തുന്ന സമയങ്ങൾ നോക്കി പരിശുദ്ധബെലിയിൽ അർപ്പണത്തിൽ പങ്കുകാരായതിനുശേഷമാണ് അവർ വിനോദസഞ്ചാരത്തിനായിട്ട് അല്ലെങ്കിൽ എല്ലാ കാഴ്ചകളും കാണുവാനായിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ അവർ അവർക്കറിയാവുന്ന അറിയപ്പെടുന്ന ദേവാലയങ്ങളോ ഷേത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെപ്പോയി അതൊക്കെ കാണുകയും അതിൻ്റെ ചരിത്രങ്ങൾ ആ ദേവാലയത്തിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട് ഓരോ അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അത് ടൂർനായിട്ട് വരുന്നവർ വിനോദ സഞ്ചാരത്തിനായിട്ട് വരുന്നവരെല്ലാം എല്ലാം ഒരേ മതത്തിപ്പെട്ടവർ തന്നെയായിരിക്കണമെന്നില്ല പല മതസ്ഥരും ഒരുമിച്ചുകൂടി വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അവരൊരു ദേവാലയത്തിലാണ് കയറുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷേത്രത്തിലാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ എവിടെക്കേറിയാലും അവർക്ക് അറിയാം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലറിയുവാനായിട്ടൊക്കെ അവർ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് അപ്പം പ്രത്യേകിച്ച് ആലപ്പുഴയെന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന ധാരാളം പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ധാരാളമുണ്ട് ആയതിനാൽ ഇവിടെ വിനോദത്തിനായി വരുന്നവർക്കെല്ലാവർക്കും ഒരിക്കലും നിരാശപ്പെട്ട് പോകേണ്ട അവസരങ്ങൾ വന്നതായിട്ടെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ഏത് സ്ഥലത്തുനിന്ന് വരുന്നവരാണെങ്കിലും ഏത് ഏതാളുകളാണെങ്കിലും അവരെ കാണാൻ അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ കൂടാതെ കൂടുതൽ മറ്റു സ്ഥലങ്ങളും പള്ളികളും ഷേത്രങ്ങളുമൊക്കെ കാണുവാനായിട്ടും അവർ ശ്രമിക്കാറുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇപ്പം കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ വരാറുണ്ട് ആലപ്പുഴക്കാരാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയ്ക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വേനൽ സമയങ്ങളിലൊക്കെ നമുക്ക് ആലപ്പുഴ ടൗൺ ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെയാണെങ്കിൽ ഒട്ടും നിൽക്കാനോ തിരിയാനോ പാടില്ലാത്ത രീതിയിലുള്ള നല്ല ആളുകളും നല്ല വണ്ടികൾക്കൊക്കെ വാഹനങ്ങളൊക്കെ നല്ല ബ്ലോക്കാകുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് ടൂറിസത്തെ ബിസി കാരണം

എല്ലാവിധത്തിലും നല്ലപോലെ സ്വാധീനിക്കുകയും കൂടുതൽ അറിവുകൾ ലഭിക്കാനും മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മതമായാലും ടൂറിസമായാലും എല്ലാവിധത്തിലും അങ്ങോട്ടുമിങ്ങോട്ടും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് പല സ്ഥലങ്ങളിലും അതിന്ന സ്ഥലമെന്നെടുത്ത് പറയാനായിട്ട് സാധിക്കില്ല അത്രയേറെ സ്ഥലങ്ങളിൽ നിന്നും ടൂറിസത്തിനായിട്ടൊക്കെ ആളുകളിവിടെ എത്തിച്ചേരാറുണ്ട്